എനിക്ക് ഏറ്റവും കൂടുതല് ചെയ്യാൻ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുക്കിങ്ങും ഒന്ന് അതുപോലെ തന്നെ എഴുത്തും എനിക്ക് എഴുത്തിന് വേണ്ടി ഞാനൊരു പ്രത്യേക സമയം കണ്ടെത്താറുണ്ട് അത് എഴുതാനായിട്ട് എൻ്റെ ഒരു മൈൻഡ് പ്രിപ്പെയറാക്കണം കൂടുതലും എഴുതാറുള്ളത് എനിക്ക് സന്തോഷം വരുമ്പോഴും അതുപോലെതന്നെ വല്ലാതെ സങ്കടം വരുമ്പോഴുമാണ് ഞാൻ എഴുതാറുള്ളത് അങ്ങനെ എഴുതിയ കുറച്ച് പോയംസ് ആയാലും കഥകളായാലും എന്റെ കയ്യിലുണ്ട് ചിലതൊക്കെ കോമഡിയില് അവസാനിക്കും ചിലതൊക്കെ ഭയങ്കരം സെൻറ്റിമെൻറലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ കൂടുതലും എഴുതാനായിട്ട് തെരഞ്ഞെടുക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ വീട്ടില് മിക്കപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും കാരണം അപ്പോള് എനിക്ക് കുറച്ചുകൂടി എൻ്റെ മൈൻഡ് ഫുൾ കാമായിരിക്കും വീട്ടില് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രസൻസൊക്കെ ഉണ്ടെങ്കില് ഇപ്പോള് എൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും കൂടുതലും ഞാൻ തെരഞ്ഞെടുക്കാറ് വീടിൻ്റെ ഉള്ളില്ത്തന്നെയാണ് എൻ്റെ റൂം തന്നെയാണ് ഞാൻ എഴുതാനായിട്ട് തെരഞ്ഞെടുക്കാറ് പിന്നെയും ഭയങ്കരം വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കണമെങ്കില് മാത്രമേ ഞാൻ പുറത്തേക്കിറങ്ങൂ ഒറ്റയ്ക്കിറങ്ങി അമ്പലത്തിൻ്റെ സൈഡില് അവിടെ കുളമൊക്കെയുണ്ടെങ്കില് അവിടെയൊക്കെ പോയിരുന്ന് എഴുതാറുണ്ടായിരുന്നു ഒരു ടൈമിനുള്ളില് എഴുതിത്തീർത്തിങ്ങ് പോരും ആ മുഴുവനായിട്ട് എഴുതിത്തീർക്കാൻ പറ്റിയില്ലെങ്കില് പിറ്റേ ദിവസം ഞാൻ അവിടെത്തന്നെ പോയിരുന്ന് എഴുതിത്തീർക്കാറുണ്ട് അതുപോലെ തന്നെ എഴുത്തിനെ ഒരു ഹോബി ആയിട്ടല്ല ഞാൻ കൊണ്ടുനടക്കുന്നത് എനിക്കത് ഒരു എൻ്റെ ഒരു ലൈഫിലൊരു പാർട്ടായിട്ടാണ് ഞാൻ കൊണ്ടുനടുക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതല് എഴുതാനായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങള് കൂടുതലും കവിതകളും പാട്ടുകളുമൊക്കെയാണ് കഥകള് ഞാനങ്ങനെ എഴുതാറില്ല പിന്നെ തോട്ട്സ് എഴുതും എൻ്റെ ചിന്തകളും മൈൻഡില് വരുന്ന കാര്യങ്ങള് ഞാൻ എഴുതും അതിപ്പോള് സങ്കടമായാലും സന്തോഷമായാലും ഞാനത് എഴുതാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് എഴുതാനായിട്ടൊരു സമയം അങ്ങനെയില്ല തോന്നുമ്പോള് എഴുതും ഇപ്പോള് തോന്നിയാല് ഇപ്പോള് എഴുതും അങ്ങനെയൊരു മൈൻഡാണ് എഴുതാന് എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ് എനിക്ക് പുസ്തകങ്ങളും കാര്യങ്ങളുമൊക്കെ എനിക്ക് ഭയങ്കരം ജീവനാണ് പിന്നെ അതുപോലെ തന്നെ എഴുത്തിലെന്നെ കൂടുതലും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛന് ഇവിടെയിരുന്ന് എഴുതുന്ന പല കവിതകളായാലും കഥകളായാലും എനിക്ക് ഒത്തിരിയും ഇഷ്ടമാണ് അതിനകത്ത് കുറേ ആഴങ്ങള് ആഴങ്ങളിലിങ്ങനെ തിങ്ങി കിടക്കുന്നുണ്ടാവും പുള്ളിയുടെ ചിന്തയും കാര്യങ്ങളും വീട്ടിലെ അവസ്ഥയായാലും എല്ലാം ആ ഒരു വരിയില് ഉൾകൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ വേറെ മറ്റു പ്രമുഖരിൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് കെ ആർ മീര തന്നെയാണ് എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ് പുള്ളിക്കാരിയുടെ നോവലുകളും കാര്യങ്ങളുമൊക്കെ പിന്നെ മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ എല്ലാ കഥകളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പോയംസും കാര്യങ്ങളുമെല്ലാം പിന്നെ പ്രത്യേകിച്ച് എഴുത്തിനോട് ഭയങ്കരം ഇഷ്ടം തോന്നാനായിട്ട് അങ്ങനെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങള് വായിച്ച് വായിച്ച് ഇങ്ങനെ വളര്ന്നതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ രീതിക്ക് പോകും അതുപോലെ തന്നെ വീട് കഴിഞ്ഞാല് പിന്നെ ഞാൻ എഴുത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളത് ഒഴിഞ്ഞ സ്പേസോ അല്ലെങ്കില് പാർക്കിന്റെ ഏതെങ്കിലും സൈഡോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അധികമാരും വരാത്ത ഏരിയ നോക്കി ഞാനെഴുതാൻ ശ്രമിക്കാറുണ്ട് എഴുത്ത് ഭയങ്കരം ഇഷ്ടമാണ് അപ്പോള് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് താല്പര്യം